സാങ്കേതിക വിദ്യയുടെ ഉയർച്ച കാരണം കുട്ടികൾക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒന്നാമതായിട്ട് ഫോണ് തന്നെയാണ് ഫോണ് ഇപ്പോൾ ഒരു ഒരു കുട്ടി ജനിച്ചുവീഴുമ്പം തന്നെ ഫോണിലേക്കാണ് ശ്രദ്ധപോകുന്നത് അപ്പോൾ ഫോണ് ഉപയോഗിക്കുന്ന കാരണം ഫോണിലുണ്ടാകുന്ന ഫേസ്ബുക് ഇൻറ്റർനെറ്റ് വാട്ട്സെപ്പ് അതിലൂടെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങള് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ അപകടങ്ങള് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ കുട്ടികളെ ഒരുപാട് പഴയ രീതിയിലുള്ള കളികള് കളിക്കാനും ഫോണ് പരമാവധി ഒഴുവാക്കി പുറം മാതാപിതാക്കൾ തന്നെ അവരുടെ കൂടെ കളിയ്ക്കുക അതുപോലെത്തന്നെ ഒരുപാട് പഴയ കളി സാറ്റ് കണ്ണുപൊത്തിക്കളി അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ പഴയ കളികളെല്ലാം കുട്ടികളെ പഠിപ്പിക്കാ അങ്ങനെ ഒക്കെ ആണ് പരമാവധി അപകടങ്ങൾ ഒക്കെ കുറയ്ക്കാൻ നമുക്ക് കഴിയുള്ളൂ